വയനാട് ജില്ലയിലെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ത് എന്നാല് കുരുമുളക് തെങ്ങ് കവുങ്ങ് വാഴ അതുപോലെ നെല്ല് ചേമ്പ് ചേന കപ്പ പിന്നേ അങ്ങനെ ഒരുപാട് കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട് വയനാട്ടിൽ അതുപോലെതന്നെ നം എൻ്റെ വീട് കിടക്കുന്നതൊരു വയൽ പ്രദേശത്താണ് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടുമുന്നിൽ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കുറച്ചങ്ങോട്ടേക്ക് പോയാല് ഒരുപാട് നെൽകൃഷി ചെയ്യുന്നത് കാണാം അതുപോലെതന്നെ തേ തേങ്ങയായ്ക്കോട്ടെ അതുപോലെ അടയ്ക്ക ആയിക്കോട്ടെ ഒരുപാട് വില്പന ചെയ്യുന്നൊരു ജില്ല കൂടിയാണ് വയനാട് വയനാട് മാത്രല്ല ഒരുപാട് ജില്ലകളില് അടയ്ക്ക അടയ്ക്ക അല്ലെങ്കില് തെ തെങ്ങ്ന്ന് വച്ചാല് ഇവിടെ നാ നാടുകളിൽ ഒക്കെ ഒരുപാട് തെ തെങ്ങ് കാണാറുണ്ട് ഞങ്ങള് പോകുമ്പോൾ ഞങ്ങള് കൂടുതൽ തേ എന്താ നാളികേരത്തിൻ്റെ എണ്ണ നല്ല പ്യുർ എണ്ണയൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ കുറ്റ്യാടിന്നൊക്കെ എണ്ണയൊക്കെ വാങ്ങിവരാറുണ്ട് അതുപോലെത്തന്നെ ജലസേചനം അവിടെത്തന്നെ വയൽ വയൽപ്രദേശ വയലിൻ്റെ അവിടെത്തന്നെ തടം കെട്ടി അല്ലെങ്കിൽ ഒരു കുളം പോലെ കെട്ടി അവിടെ നിന്ന് നനയ്ക്കാനുമൊക്കെ കൃഷിക്കാര് ജല ജലസേചന രീതി ചെയ്യുന്നുണ്ട് അതുപോലെ സാങ്കേതിക വിദ്യാന്ന് വച്ചാല് ഇപ്പോൾ ഒരുപാട് സാങ്കേതിക ഇപ്പം കൃഷി ചെയ്യുന്നിടത്ത് തന്നെ ഒരുപാട് സാങ്കേതികവിദ്യ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു പൈപ്പ് ഇട്ട് വയൽ വയല്ല് ഒരു കൃഷി ചെയ്യുന്നിടത്ത് പൈപ്പിട്ടിട്ട് വെള്ളം എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിലുള്ളൊരു പ്രത്യേക നിർമാണം നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെതന്നെ പച്ചക്കറീന്ന് വെച്ചാൽ ഓരോ വീട്ടിലും പയർ തക്കാളി വഴുതനങ്ങ അതുപോലെ ചീര പച്ചച്ചീര ചുവന്നചീര എന്നിങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്തുവരുന്നുണ്ട് അതുപോലെ പച്ചമുളകാണെങ്കിലും കാന്താരിയാണെങ്കിലും കറിവേപ്പിലയൊക്കെ ഇപ്പോ ഒരു ഇപ്പൊ ഒരു വീട് പോലും ഒരു വീട്ടില് ഒരു വീട്ടില് ഒരു ചെടി ഒരു കറിവേപ്പിലേൻ്റെ ചെടി നമ്മക്ക് നടാം എല്ലാ വീട്ടിലും ഒരുപാട് വീട്ടില് കറിവേപ്പില നടുന്നുണ്ട് അതുപോലെ ഇപ്പോൾ പുതിനയില മല്ലിയില അതൊക്കെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും വളർത്തിക്കൊണ്ട് വരുന്നത് ഇപ്പോൾ ഒരു എല്ലാ വീട്ടിലും ഓരോ ഒരു കൃഷിയെങ്കിലും ഇല്ലാത്ത വീട് ഉണ്ടാവില്ല ഒരു പ്ലാവുകള് നമ്മുടെ നാടെന്ന് പറയുന്നത് ചക്കകൊണ്ട് സന്തുഷ്ടമാണ് ചക്കകൊണ്ട് സന്തുഷ്ടം എന്നുവച്ചാൽ എല്ലാ ഈ ചക്കേന്റൊരു പ്ലാ ചക്ക ന്റൊരു സമയം വരുമ്പം ഇടിച്ചക്കയായിട്ടും പഴുത്ത ചക്കയായിട്ടും പച്ച ചക്കയായിട്ടും ഒരുപാട് ചക്ക അവിടുന്നും ഇവിടുന്നും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെ ഒരുപാട് ഒരു കാർഷിക ഉത്പന്നങ്ങൾ അല്ലെങ്കിൽ കൃ കൃഷി കൃഷിയായിട്ട് സമ്പുഷ്ഠമാണ് നമ്മുടെ ഈ വയനാട്